വിനോദ ഉപാദികൾ എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് പല ഹോബീസുണ്ട് ചിലപ്പം മ്യൂസിക് കേൾക്കുമായിരിക്കും അല്ലെങ്കില് ചിലപ്പം വല്ല സിനിമാ തീയേറ്ററുകളില് സിനിമക്ക് പോകും ഇല്ലെങ്കില് ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും റെസ്റ്റൊറെന്റില് പോകും അതൊക്കെയാണ് ഫിഷിങ് അതൊക്കെയോ അല്ലെങ്കില് ഷട്ടില് കളിക്കുക അങ്ങനെയുള്ളതെല്ലാം വിനോദ ഉപാദികളാണ് അതൊക്കെ ചെയ്യാറുണ്ട് കൂടുതല് ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളാണ് സംഗീതം എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ ജസ്റ്റ് കേൾക്കുക അപ്പോൾ തന്നെ ഭയങ്കര പുറത്ത് അധികം പോകുന്ന പുറത്ത് അധികം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഇപ്പം വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഒഴിവ് സമയമൊക്കെ അത് ആഹാ അത് മാക്സിമം യൂസ് ചെയ്യുക അത് വെറുതെ ഇരിക്കുക നമ്മള് നമ്മളെ തന്നെ അങ്ങ് റീച്ചാർജ് ചെയ്യുക അങ്ങനെ റീച്ചാർജ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്നതാണ് മ്യൂസിക് എന്നുപറയുന്നത് സംഗീതം അപ്പം പലതരത്തിലുള്ള സിനി സം സംഗീതമുണ്ട് അത് കഴിഞ്ഞാൽ വരുന്നതാണ് സിനിമ അപ്പോൾ പല തരത്തിലുള്ള പാട്ടുകളും സിനിമകളും എല്ലാം കാണാറുണ്ട് പിന്നെ പുറത്ത് പോകുമ്പൊഴത്തേക്കും ചിലവും പരിപാടി നടക്കുന്ന സ്ഥലങ്ങളുമെല്ലാം നോക്കിയിട്ടാണ് എതേലും വിനോദ ഉപാദികളിൽ പങ്കെടുക്കാറുള്ളത്